എന്റെ വീട്ടില് ഭാരത് ഗ്യാസിന്റെ സിലിണ്ടറാണുള്ളത് ഞാനതാണ് യൂസ് ചെയ്യാനായിട്ട് വാങ്ങിയത് നല്ലൊരു പ്രൊഡക്ട് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിയത് പക്ഷേ ഞാൻ തുറന്നു പറയാലോ ഇത് നമുക്ക് ഒരു രീതിയിലും നമുക്ക് യൂസ്ഫുൾ അല്ല കാരണം കുട്ടികൾക്ക് നമ്മൾ ഇപ്പൊൾ എന്റെ വീട്ടില് കുട്ടികളൊക്കെ ഇള്ളതാണ് അപ്പൊൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കണമെങ്കിൽ ഈ ഭാരത് ഗ്യാസ് യൂസ് ചെയ്യുന്ന ആരും കുട്ടികൾക്കൊന്നും ഫുഡ് ഉണ്ടാക്കി കൊടുക്കരുത് നിങ്ങളും കഴിക്കരുത് കാരണം ഇതില് ഭയങ്കര നെഗറ്റീവ് വശാണുള്ളത് അതായത് കുക്ക് ചെയ്യുമ്പോൾ ഫുഡിനൊക്കെ ഭയങ്കര ഒരു ഇതു വരുന്നുണ്ട് അതായത് ഫുഡിനൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു മോശം വശം ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ അതായത് നമുക്കിത് യൂസ്ഫുള്ളല്ല അതായത് ഇനി ഒരിക്കലും ആരും ഭാരത് ഗ്യാസിന്റെ ഗ്യാസിലിൻഡർ യൂസ് ചെയ്യരുത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണമാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഒരുപാട് അസുഖങ്ങളും ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ ഭക്ഷ് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വരെ ഇത് ഈ ഭാരത് ഗ്യാസ് മൂലം ഇൻഫെക്ഷൻസ് പടരാൻ ചാൻസ് ഉണ്ട് അതായത് ഈ അങ്ങനത്തെ ആ പ്രോഡക്റ്റ് ഒട്ടും നല്ലതല്ല നമ്മള് വേ ഭാരത് ഗ്യാസ് ആരുടെ അടുത്ത് ആരുടെ വീട്ടിലെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റി വേറെ ഏതെങ്കിലും എടുത്തോളു കാരണം ഈ ഭാര ത് ഗ്യാസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒരു ഒട്ടും യൂസ്ഫുൾ അല്ലാത്ത ഒരു സാധനാണ് യൂസ്ഫുൾ അല്ലാന്ന് വച്ചിട്ടുണ്ടെങ്കി നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കി നമുക്കൊരുപാട് ഇത് ഈ ഭാരത് ഗ്യാസ് യൂസ് ചെയ്തു കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണ ഗുണങ്ങൾ ഉണ്ടാവുന്നില്ല ഒ ഭയങ്കര ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസുണ്ട് അതുപോലെ നമ്മുടെ ബോഡിനേയും നമ്മുടെ നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കാൻ അതിന് കഴിയുന്നുണ്ട്